ആ ചെടികളും മരങ്ങളും ഒക്കെ പുഷ്പിച്ച് നിൽക്കുന്നത് കാണാൻ ഒരുപാട് രസാണ് കാണാൻ അതിൻ്റെ കൂടെ തന്നെ പൂന്തോട്ടം ഉണ്ട് അപ്പം അവിടെ ഒരുപാട് പൂക്കളുണ്ട് ആ കാശിത്തുമ്പ റോസ്പ്പൂ ചെമ്പരത്തി നന്ത്യാർവട്ടം ചെണ്ടുമല്ലി പിന്നെ എട്ടുമണി പൂ പത്തുമണി പൂ അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട് അപ്പോൾ ഇവയെല്ലാം പൂത്ത് നിക്കണ സമയത്ത് കാണാൻ ഒരുപാട് ഭംഗിയാണ് കാരണം അവിടെ ഒരുപാട് പൂമ്പാറ്റകളും മറ്റും വണ്ടുകളും വരാറുണ്ട് ഈ പൂന്തോട്ടത്തെ പരിപാലിക്കുക എന്നുള്ളത് ഒരുപാട് ഒരുപാടല്ലാ കുറച്ച് പണിയുള്ള കാര്യമാണ് നമ്മളതിന് വേണ്ട രീതിയിൽ വെള്ളമൊഴിക്കും മറ്റു കാര്യങ്ങളും അതിൽ വല്ല കീടങ്ങൾ വരികയാണെങ്കിൽ അത് നുള്ളി കളയുകയും മറ്റും അതിനെ നന്നായി പരിപാലിക്കുക നന്നായി വളർന്നു വളർന്നു നിൽക്കുകയാണെങ്കിൽ വെട്ടിക്കളയുക അങ്ങനെ കുറച്ച് പരിപാലിക്കേണ്ട കാര്യമാണ് പൂന്തോട്ടത്തിനുള്ളത് അപ്പം ആ ഒരു നമ് പൂത്തു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ് കാരണം നമ്മൾ വെള്ളമൊഴിച്ച് നമ്മൾ നന്നായി പരിപാലിച്ച് ചെടികൾ പൂത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അതിന് അതിന്റേതായിട്ടുള്ള ഭംഗിയാണുള്ളത് അത് തീർച്ചയായും നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യാണ്